മലയാള ഭാഷ ഞങ്ങളുടെ മാതൃഭാഷയാണ് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഭാഷയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് ധാരാളമായി പ്രചരിപ്പിക്കുക ലഘുലേഖനങ്ങൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ തുടങ്ങിയവ കുട്ടികളിലും വലിയവരിലും രക്ഷിതാക്കളിലും എല്ലാവരിലും വായനാശീലം വളർത്തുക ഒരു ദിവസം ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും നിർബന്ധമായി നമ്മുടെ മാതൃഭാഷയിൽ മലയാളഭാഷയിൽ എന്തെങ്കിലും കവിതകളോ പ്രസംഗങ്ങളോ വായിപ്പിക്കാൻ എല്ലാവരോടും നിർബന്ധിക്കുക ധാരാളം പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുക ചെറിയ ചെറിയ ഉത്സവങ്ങൾ ആയിട്ട് ഈ മലയാള ഭാഷയുടെ കുറെ പേരെ സംഘടിപ്പിച്ച് മലയാള ഭാഷയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഓരോരുത്തർക്ക് ഓരോരോ കർത്തവ്യങ്ങൾ ഏൽപ്പിക്കുക